ഇൻറ്റർനെറ്റ് ബാങ്കിങ് സംമ്പ്രദായത്തെ ഭയങ്കരമായി ബാധിച്ചിട്ടുണ്ട് നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ബാങ്കിൽ പോകേണ്ട ആവശ്യം ഇപ്പോൾ വരുന്നില്ല നമ്മളിപ്പം എന്ത് ചെയ്യണമെങ്കിലും ജി പേ അങ്ങനത്തെ ഉള്ള ഇതൊക്കെ ഉള്ള കൊണ്ട് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാനും അക്കൗണ്ടിൽ ഇടുകയാണെങ്കിലും നമുക്ക് വേറെ ഇൻറ്റർനെറ്റ് കഫേ അങ്ങനെയുള്ളതുകൊണ്ട് നമ്മൾ അതിൽ പോയി പൈസ കൊടുത്ത് നമ്മളതിൽ ഇടണമെന്ന് നമുക്ക് ബാങ്കിൽ കൂടുതലായി പോകേണ്ട ആവശ്യം ഇപ്പോൾ വരുന്നില്ല എന്തെങ്കിലും അർജൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി നമുക്ക് വ വളരെ നല്ലൊരു സഹായമാണ് ഇൻറർനെറ്റ് നൽകുന്നത് അത്യാവശ്യഘട്ടങ്ങളിൽ നമുക്ക് പൈസ എടുക്കാനും നമുക്ക് പൈസ വേറെയുള്ളവർക്ക് മാറ്റി കൊടുക്കാനും മുമ്പ് അതൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മടേലുള്ള നമ്മുടേൽ എന്താണ് ജി പേ അങ്ങനെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് നമ്മൾ വേറെയുള്ളവർക്കും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നു നമ്മൾ വീട്ടിൽ അർജൻറ്റായിരിക്കുന്ന ടൈമിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇൻറ്റർനെറ്റ് നമ്മുടെ ജീവിതത്തെ വളരെ വലിയ വ്യത്യാസമാണ് നല്ല രീതിക്ക് ചീത്ത വഴിക്കുണ്ട് നല്ല രീതിക്ക് നമുക്ക് കൊണ്ടു വന്നിരിക്കുന്നത് ബാങ്കിങ് സമ്പ്രദായത്തെ വളരെ അധികം നന്നായി ബാധിച്ചിട്ടുണ്ട് അതു പറഞ്ഞാൽ അവർക്ക് നമുക്കിപ്പോൾ എന്ത് കാര്യത്തിനും ബാങ്കിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല ഇൻറ്റർനെറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അതിലൂടെത്തന്നെ ട്രാൻസാക്ഷൻ അതെല്ലാം നടത്തുന്നതു കൊണ്ട് അവർക്കും കൂടുതലായൊരു ഹെവി ആയൊരു ഇത് വരുന്നില്ല എല്ലാവരിനെയും മാനേജ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അവർക്കും അതിൽ നിന്ന് കുറച്ച് അതിൽ നിന്ന് റിലീഫ് ആയി വരുന്നുണ്ട് അതുകൊണ്ട് ഇൻറ്റർനെറ്റ് നമ്മുടെ എന്താണ് ബാങ്കിങ് സമ്പ്രദായത്തെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നല്ലൊരു നല്ലൊരു ഇതാണ് നടത്തുന്നത് നല്ലൊരു ഹെൽപ്പിങ് ഇതാണ് ചെയ്യുന്നത് നമ്മുടെ പൈസ ആയാലും എടുക്കാനും കൊടുക്കാനും എല്ലാം തന്നെ നമുക്ക് ബാങ്കിലാണ് മുമ്പ് ആശ്രയിക്കേണ്ടി വന്നിരിക്കുന്നത് ഇപ്പോൾ വയസ്സായവർ മാത്രം അതിൽ ത്ത് എന്താണ് കുറച്ച് പേർ പോണമെന്നുള്ളു ബാക്കി എല്ലാവരും തന്നെ ഇങ്ങനെയുള്ള ഇൻറ്റർനെറ്റ് ഉപയോഗിക്കുന്നതു കൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ട്തന്നെ ഇത് വളരെ നല്ലൊരു സമ്പ്രദായം ആയിട്ടാണ് എനിക്ക് പറയാനുള്ളത്